എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചാർജ്ജറാണ് ഇപ്പോൾ ചാർജ്ജർ എന്നു പറഞ്ഞാൽ പലതരത്തിലുണ്ട് മൊബൈൽ ചാർജ്ജർ മാത്രമല്ല പലതരത്തിലുള്ള ചാർജ്ജർ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം മെയിനായിട്ടതിൻ്റെ പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കേറ്റവും ഉപകാരമുള്ളൊരു കാര്യമാണ് ചാർജ്ജർ എന്നു പറയുന്നത് നമുക്കിപ്പോൾ ഫോണൊക്കെ ഇപ്പോൾ ചാർജ്ജൊന്നും ഇല്ലാണ്ട് ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ്ജർ ചാർജ്ജർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓണാക്കാനൊക്കെ പറ്റും പെട്ടെന്ന് പിന്നെ അതുമല്ല പവർ ബാങ്കിലൊക്കെ നമ്മൾ പവർ ബാങ്കിൽ ചാർജ്ജർ കുത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ഫോണിലാണെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കെന്തിനാണെങ്കിലും ചാർജ്ജർ വേണം ഇപ്പോൾ ഇലക്ട്രോണിക്കിൻ്റെ എന്തൊരു സാധനകളാണെങ്കിലും നമുക്ക് സാനത്തിനാണെങ്കിലും നമുക്ക് ചാർജ്ജർ ഇല്ലാണ്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു പിന്നെ അവസ്ഥയാണ് വരുന്നത് അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ്ജർ കൊണ്ടുള്ള ഉപകാരം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനമായിട്ടുള്ള ഉപകാരങ്ങളാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാപ് ടോപ്പിലാണെങ്കിലും ഫോണിനാണെങ്കിലും പിന്നെ ഹെഡ് സെറ്റിനാണെങ്കിലും ഇപ്പോൾ ഇലക്ട്രോണിക്കിൻ്റെ എന്തെങ്കിലും വേറെന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ എല്ലാറ്റിൻ്റെ കൂടെയും ചാർജ്ജർ കിട്ടും ചാർജ്ജറെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്